ഞാൻ ധാരാളം വിനോദത്തിലേർപ്പെടാറുണ്ട് വിനോദത്തിനായ് ഞാൻ ഒരു ദിവസം തന്നെ കുറച്ച് സമയം മാറ്റി വെയ്ക്കാറുണ്ട് അര മണിക്കൂറല്ലെങ്കിൽ ഒരു മണിക്കൂർ വരെ ഞാൻ എനിക്ക് വേണ്ടിയായുള്ള സമയത്തിന് മാറ്റിവെയ്ക്കാറുണ്ട് ഞാൻ ചിലവഴിക്കുന്ന വിനോദങ്ങളെന്തെന്നാൽ ടീ വി മൊബൈൽ പാട്ടുകൾ ഡാൻസ്സ് കൂടാതെ വായന എന്നിവയിലാണ് വായനയെന്നെ വളരെയധികം സഹായിച്ചിട്ടുണ്ട് എന്തെങ്കിലുമൊരു കാര്യത്തിൽ ഞാൻ വളരെ ഡിസ്റ്റർബാണെങ്കിൽ ഞാൻ മാക്സിമം അത് വായനയിലോ അതോ എനിക്കിഷ്ടമുള്ള എന്തെങ്കിലും കാര്യത്തിൽ ചിലവഴിക്കാൻ പതിവ് പൊതുവേ ഞാൻ എൻ്റെ വിനോദ സമയങ്ങൾ ചിലവഴിക്കുന്നത് എൻ്റെ വീട്ടുകാരുടെ കൂടെത്തന്നെയാണ് അവരെ കൂടെയിരുന്ന്റ കുറച്ച് നേരം സംസാരിച്ചാൽ എൻ്റെ പൊതുവേയുള്ള എല്ലാ പ്രശ്നങ്ങളും തീരാറാണ് പതിവ് അതുകൂടാതെ ഞാൻ ചിലവഴിക്കുന്നത് മൊബൈൽലാണ് സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോംസ്സായ ഇൻസ്റ്റാഗ്രാം അല്ലെങ്കിൽ വാട്സപ്പ് ഇത് രണ്ടും എന്നെ എൻ്റെ വിനോദ സമയങ്ങൾ ചിലവഴിക്കാൻ ഹെൽപ്പ് ചെയ്യാറുണ്ട് അതായത് ഇൻസ്റ്റാഗ്രാം എന്ന പ്ലാറ്റ്ഫോമിലൂടെ റീയൽസ് സ്റ്റോറിയസ് പല പല പുതിയ പുതിയ കാര്യങ്ങളെല്ലാം എനിക്കതിലൂടെ കിട്ടാറുണ്ട് അതൊക്കെ ഞാൻ വളരെയധികം യൂസ്ഫുള്ളായിട്ടാണെനിക്ക് തോന്നീട്ടുള്ളത് അതുകൂടാതെ എനിക്കേറ്റം ഇഷ്ടപ്പെട്ട കാര്യമാണ് ഡാൻസ് കളിയ്ക്കാനും വായന വായിക്കുവാനുവൊക്കെ ഫ്രെണ്ട്സ് ആൻഡ് ഫാമിലിയായിട്ട് കൂടുമ്പോൾ ഞങ്ങൾ പാട്ടുകൾ പാടുകയും ഡാൻസ്സ് കളിയ്ക്കയും അല്ലെങ്കിൽ എൻ്റെതായ സമയം ഞാൻ ചിലവഴിക്കുമ്പോൾ പുതിയ പുതിയ പാട്ടുകൾ അത് കേൾക്കുകയും അതിൽ ചുവട് വെയ്ക്കുകയും ചെയ്യാറാണ് ഉള്ളത് അതൊക്കെയെന്നെ വളരെയധികം സഹായിക്കയാണ് ചെയ്യുന്നത്